ഓക്കെ മാം എന്തായിരുന്നു പ്ലൈസിനെ കുറിച്ചാണോ നമുക്ക് കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ ആണെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി ആണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് അതും അതായത് കൾച്ചറും അങ്ങനതന്നെയാണ് വരുന്നത് അപ്പം എല്ലാം ഭയങ്കര ട്രഡീഷണൽ ആണ് അതേപോല തന്നെ പ്ലേസും ഭയങ്കര ഹമ്പിൾ ആണ് അതേപോല തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആണ് നിങ്ങൾക്കെവിടെ പോകാനാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് പറയുകയായിരുന്നെങ്കിൽ നമുക്കത് വിശദീകരിച്ച് പറഞ്ഞുതരാമായിരുന്നു ഓക്കെ നമ്മുടെ ഇവിടത്തെ ഡ്രസ്സിംഗ് നിങ്ങൾ എവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് പതിനാല് ജില്ലകളിലും നമുക്ക് ഒന്നോ എല്ലാ സ്ഥലോം ഒന്നിനൊന്ന് ബെറ്റർ ആണ് എല്ലാം എന്താണ് പറയുക വളരെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം അവിടത്തെ ആൾക്കാരും ആണെങ്കിലും സ്നേഹം കൊണ്ടും ആ എല്ലാം കൊണ്ടും എല്ലാവരും ഒരു ഒത്തൊരുമയോടെയുള്ള ഒരിതാണ് പിന്നെ ഒരു മഹാ എന്താണ് പറയുക മത സൌഹാർദ്ദമാണിവിടെ കേരളത്തിൽ മറ്റ് മറ്റ് സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭയങ്കര എല്ലാവരും ഭയങ്കര ഒത്തൊരുമയാണ് അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും കേട്ടോ ഇപ്പോൾ ഡ്രസ്സിംഗിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ നമ്മളിവിടെ കൂടുതലും ട്രഡീഷണൽ ഡ്രസ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ചുരിദാർ സാരി അതേപോലെ തന്നെ മുണ്ട് ഷർട്ട് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫുഡ് ആണെങ്കിൽ സാധാരണ നമ്മുടെ മ് ഓ ഉണ്ട് ഉണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം കോ നമുക്ക് പാലക്കാട് ഏരിയയിൽ ഉണ്ട് ഇപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ തിരുവന്തപുരത്തുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ നെയ്ത്ത് ശാലകളുണ്ട് കൂടുതലിപ്പം കുറച്ച് അന്യം നിന്നു വരുവാണ് നെയ്ത്ത് ശാലകളൊക്കെ ഇപ്പം കൂടുതലും നമ്മൾ നെയ്ത്ത് പിന്നെ കാഞ്ചീപുരം ആ തമിഴ്നാട് ആ ഭാഗത്തോട്ടാണ് നെയ്ത്തിന് കൂടുതൽ ഇതുള്ളത് ഇവിടെ കേരളത്തിൽ വളരെ കുറവാണ് എന്നാലും ഉണ്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്

ഓ ഉണ്ടുണ്ട് നമുക്കിപ്പം ഇവിടെ തിരുവനന്തപുരം എടുക്കുവാണെങ്കിൽ നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രമുണ്ട് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അത് കഴിഞ്ഞിട്ട് നമുക്ക് തൃശ്ശൂർ വരുവാണെങ്കിൽ നമുക്ക് വടക്കുംനാഥ ടെമ്പിൾ ഉണ്ട് അതൊരു ശിവ ടെമ്പിൾ ആണ് അതേപോലെ തന്നെ പാലസ് ഉണ്ട് അതെ തൃശ്ശൂരും ഉണ്ട് പാലസ് തിരുവന്തപുരത്തും ഉണ്ട് പാലസ് നമുക്ക് ആൾക്കാരൊക്കെ പോകുന്ന പാലസ് ഉണ്ട് തൃശ്ശോരൊക്കെയാണെങ്കിൽ നമുക്ക് പോകാം പിന്നെ ടെമ്പിൾ വിശേഷപ്പെട്ട ഒത്തിരി ഒത്തിരി ടെമ്പിൾ ഉണ്ട് ഇപ്പം നമുക്ക് ഈ വയനാട് ഭാഗത്തേക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ടെമ്പിളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചർച്ച് ടെമ്പിൾ ഒക്കെയുണ്ട് എല്ലാം പിന്നെ നമുക്ക് ഓരോരോ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ വളരെ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന കുറേ ടെമ്പിളുകളുണ്ട് അതേപോലെത്തൊരു ടെമ്പിൾ ആണ് നമുക്ക് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുവല്ലോ യൂട്യുബിലൊക്കെ ഒത്തിരി കഥകൾ അതിൻ്റെ പുറകിലുണ്ട് നമുക്ക് അറിയില്ലാത്തൊരു സാ നിഗൂഢം പോലെ താജ്മഹാൽ ഉള്ളതുപോൽ തന്നെയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രവും മ് ആ ആയിക്കോട്ടെ